ആ കേരളത്തെപ്പറ്റി എന്താണറിയേണ്ടത് അതെന്നുപറയുമ്പോൾ കേരളത്തിൻറെ ഈയൊരു ഭംഗി തന്നെയാണ് കാരണം നമുക്കറിയാം ബാക്കിയുള്ള ഒരു രാജ്യത്തെപ്പോലെയല്ല ഇവിടെക്കിട്ടുന്നൊരു സമാധാനവും സന്തോഷവുമൊന്നും വേറെ എവിടെച്ചെന്നാലും കിട്ടില്ല പ്രത്യേകിച്ചിവിടുത്തെ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ ജീവിതരീതികൾ തന്നൊരു വേറൊരു രീതിയിലുള്ളതാണ് നമുക്ക് എപ്പോഴും സന്തോഷം നൽകുന്നതും സമാധാനം നൽകുന്ന ഒരു അന്തരീക്ഷമാണവിടുത്തെ അതുപോലെതന്നെ അവിടുത്തെ ഫുഡ് ആണെങ്കിലും അവിടുത്തെ കാഴ്ചകൾ അവിടുത്തെ ആളുകൾ വരുന്നവരോട് പെരുമാറുന്ന രീതി അതുകൊണ്ടൊക്കെത്തന്നെയാണ് കേരളത്തിനെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയൊക്കെ വിസിറ്റ് ചെയ്യാനാണ് താൽപ്പര്യം തെയ്യം കൂടുതലും വയനാട് വയനാട് അല്ല ഉള്ളത് കണ്ണൂർ കാസർഗോഡ് ഏരിയയിലാണ് തെയ്യം കൂടുതലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തെയ്യമാണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ ആ കണ്ണൂരോ കാസർഗോഡോ പോകേണ്ടിവരും വയനാടെന്നു പറയുന്നത് കൂടുതലും കാട് അതുപോലെ ആദിവാസികളുടെ ജീവിതമൊക്കെയാണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിലാണ് നിങ്ങൾക്ക് വയനാട് പോകേണ്ടിവരുന്നത് വയനാട് പിന്നെ നിങ്ങൾക്ക് ബോട്ടിങ് ഫിഷിങ് എന്നുപറയുന്നത് ആലപ്പുഴ അതേപോലെ കോട്ടയത്തിൽ കുമരകം സൈഡൊക്കെയാണ് കൂടുതലും കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ളത് അപ്പോൾ അവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വിവിധതരത്തിലുള്ള മീനുകളാണെങ്കിലും ഫുഡുകളൊക്കെത്തന്നെ അവർ ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വെച്ചുതന്നെ ഉണ്ടാക്കിത്തരും അതിപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിപ്പോൾ നിങ്ങൾക്ക് വാട്ടർ സ്പോർട്ട് ആണ് താല്പര്യമെങ്കിൽ അതിനും നിങ്ങൾ ആലപ്പുഴ തന്നെ വരേണ്ടിവരും അല്ലായെങ്കിൽ വാഗമണ്ണും മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ മികച്ച റിസോർട്ടുകളൊക്കെ കിട്ടുന്നതാരിക്കും അത് ഇടുക്കിയിൽ തന്നെയാണ് ഓ ഇരവികുളം നാഷണൽ പാർക്ക് വരുന്നത് ഇടുക്കിയിലാണ് അപ്പം അവിടെച്ചെല്ലുവാണെങ്കിൽ നിങ്ങൾക്ക് വരയാടുകളെയൊക്കെ കാണാൻ കഴിയുന്നതാണ് അത് വളരെ റെയറായിട്ട് കാണുന്ന ഒരു ജീവിയാണ് ഫീസ് അവിടെപ്പോകുന്നതിന് ഫീസൊന്നുമില്ല നിങ്ങൾക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്യുന്നതിന് അവിടെ വിസിറ്റ് ചെയ്യാവുന്ന സ്ഥലങ്ങൾ റെസ്ട്രിക്ടഡ് ആണ് എല്ലാ ഏരിയയിലേക്കും നമുക്ക് ടൂറിസ്റ്റ് പ്രവേശനം ഇല്ല കാരണം അത് കാടുമായിട്ട് ബന്ധപ്പെട്ടുനിൽക്കുന്ന സ്ഥലമായതുകൊണ്ടുതന്നെ എന്തെങ്കിലും അറിയാനുണ്ടോ